ആ ചേച്ചി വരു വരൂ ഏസി അല്ലേ എത്ര എത്ര വലിയ റൂമാണ് എത്ര ഇഞ്ച് എത്ര ടൺ എസിയാണ് വേണ്ടത് അപ്പോൾ നമ്മുക്കെന്നാൽ ഒരു അര ടണ്ണിൻ്റെ ഏസി നോക്കിയാലോ ബഡ്ജറ്റ് എത്രയാണ് ഏറ്റവും കുറവ് പത്തായിരം രൂപയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകഴിഞ്ഞ് അത് അത് വെൾപൂളിൻ്റെയാണ് അത് നല്ല നല്ല കമ്പനിയാണ് ഇവിടെ ഇവിടെയല്ലാം നല്ല കമ്പനിയെ കൊടുക്കുന്നുള്ളു ഞങ്ങളീ ചൈനീസ് ക്മ്പനിയൊന്നും കൊടുക്കുന്നില്ല അത് ചെറിയ റൂമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു അര ടൺ മതിയാകും ഇനിയൊരു സേഫ്റ്റിക്കു വേണമെങ്കിൽ ഒരു മുക്കാൽ ടൺ നോക്കണോ ആ അത് അതൊരു ഇരുപത്തിയഞ്ചിന്ന് സ്റ്റാർട്ടിങ് ആ ആ പിന്നെ നല്ല കുറച്ചുംകൂടി സ്റ്റാർ കുടുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കുടും ആ ഫിറ്റ് ചെയ്തു തരാം അത് ഫ്രീയാണ് ഫ്രീയാണ് ഇൻസ്റ്റാളേഷനൊക്കെ ഫ്രീയാണ് എവിടെയാ വീടെവിടെയാണ് ആ കോങ്ങാടല്ലേ അത് ഇവിടുന്നൊരു അഞ്ചു കിലോമിറ്റർ അല്ലേയുള്ളു അത് വരും ആ അതും വെൾപൂൾ തന്നെ വാറൻറ്റി കംപ്രസറിന് അഞ്ചുവർഷം വാറൻറ്റിയുണ്ട് പിന്നെ മെയ്നായിട്ടു നമ്മള് ആ ഒരു ഫുൾ ഉണ്ടാവുമല്ലോ എന്നുപറഞ്ഞാൽ ആ ഇടിമിന്നൽ അതിനൊന്നും നമ്മൾ കവർ ചെയ്യില്ലാട്ടോ നിങ്ങളുടേതായി പറ്റുന്ന ഒരു സംഭവത്തിനും ഒന്നും കവർ ചെയ്യില്ല ആ അതൊരു ആ ആദ്യത്തെ വർഷം അഞ്ചുതവണ വരും അഞ്ചു തവണ ഫ്രീ സെർവിസാണ് അതുപറഞ്ഞാൽ നമ്മുടെ ഫിൽട്ടർ മാറ്റുക അതിനൊക്കെ നമ്മൾ വന്നു ഫ്രീയായി ചെയ്തുതരും ആ അത് ഒരു ആ മൂന്നുമാസം കുടുമ്പോൾ അഞ്ചു മാസം കുടുമ്പോൾ അല്ലെങ്കിലീ മ മഴക്കാലത്തൊന്നും അധികം ഉപയോഗിക്കില്ലലോ അപ്പോൾ ആ അങ്ങനെ പിന്നെ എപ്പോൾ വിളിച്ചാലും വി കേട്ടോ ട്വൻറ്റിഫോർ സെവനാ ശെരി ചേച്ചിയുടെ പേരെന്താണ് ബില്ലടിക്കാൻ ജ്യോത്സനല്ലേ സ്ഥലം കോങ്ങാട് ആ ഫോൺ നമ്പറോ ഒക്കെ ഒക്കെ ഒക്കെ എങ്ങനെയാണ് ബില്ലെങ്ങനെ ചെയ്യണ്ടത് ക്യാഷാണോ കാർഡാണോ ആ ഓക്കേ എന്നത് അടിച്ചോളൂ